ഇതു കാസർഗോഡാണ് കേരളത്തിൻ്റെ അങ്ങേയറ്റം ഉണ്ടാകുന്ന ഒരു സ്ഥലം ഇവിടുത്തെ ആൾക്കാർ പലവിധത്തിൻ്റെ ഭക്ഷ്യഭോജ്യങ്ങൾ കഴിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ നാളികേരം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അരിയും തേങ്ങയും മെയിനായിട്ട് ഇവർ ഇവിടെ കഴിക്കാറുള്ളൂ ഇഡ്ലി ദോശ കിട്ടുന്ന എല്ലാവിധത്തിൻ്റെ ആഹാരങ്ങൾ

ഇവിടുത്തെ ഇഷ്ടമുള്ള മലയാളികൾക്ക് ഇഷ്ടമുള്ള ഒരു ആഹാരമെന്നു പറഞ്ഞാൽ പുട്ടാണ് പുട്ടും പഴവും പുട്ടും കടലക്കറിയും ഇതുപോലെ അനേക കോംബിനേഷനിൽ ഈ പദാർത്ഥങ്ങൾ കഴിക്കാറുള്ളൂ കഞ്ഞി ഉണ്ടാകും ഒരു സാധാരണക്കാരുടെ വീട്ടിൽ ചോറും കഞ്ഞി അതെല്ലാം പിന്നെ ഉപ്പുമാവ് ഉപ്പേരി അങ്ങനെയെല്ലാം പറയും പച്ചക്കറികൾ യൂസ് ചെയ്തിട്ടാണ് അതൊക്കെ ഉണ്ടാകാറുള്ളത് പിന്നെ ഇതു തോരൻ എന്നു പറയും അത് ഇവിടുത്തെ ചില ആൾക്കാർ യൂസ് ചെയ്യുന്ന കറികളാണ് ചെയ്യേണ്ടത് പിന്നെ വിശേഷ ദിവസങ്ങളിൽ ഈ ഓണ ഓണസദ്യ ഓണസദ്യയെന്നു പറഞ്ഞാൽ കുറേ പത്ത് ഇരുപത്തഞ്ച് വെറൈറ്റി ചോറും ൻ്റെ കൂടെ കറികൾ ഉണ്ടാകും പപ്പടം മെയിനായിട്ട് ആ സമയത്തിൽ തിന്നാറുണ്ട് പിന്നെ നേന്ത്രപ്പഴം നേന്ത്രപ്പഴം കൊണ്ട് കുറേ വിഭവങ്ങൾ ഉണ്ടാക്കും പരിപ്പ്

അത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആഹാരമാണ് നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് തിന്നുന്നത് ഇവിടുത്തെ ആൾക്കാർക്ക് വളരെ ഇഷ്ടമാണ് അതു നല്ല പ്രോട്ടീനെല്ലാം ഉണ്ടല്ലേ അതുകൊണ്ട് കുട്ടികൾക്ക് രാവിലെ അതുതന്നെ കൊടുക്കാറുള്ളൂ പിന്നെ ഈ പായസങ്ങൾ പാൽപ്പായസമാണ് വിശേഷം പായസങ്ങൾ വിശേഷ ദിവസങ്ങളിൽ പാൽപായസമെല്ലാം ഉണ്ടാക്കാറുണ്ട് ശർക്കര കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ ശർക്കര ഉപയോഗിച്ചിട്ട് പായസങ്ങൾ ഉണ്ടാക്കും അതുപോലെ വേറെ ഈ ഉഴുന്നെല്ലാം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന കുറേ സാധനങ്ങൾ ഉണ്ട് അതും ഇവിടെ ആൾക്കാർക്ക് ഇഷ്ടമാണ് ദോശ ഉണ്ടാക്കുന്നത് കേരളത്തിൽ എവിടെ പോയാലും ഞങ്ങൾക്ക് കിട്ടുന്നത് ഈ ദോശ ഉഴുന്ന് ദോശയാണ് ഇഡ്ഡലിയാണ് പിന്നെ പുട്ടാണ് എവിടെ പോയാലും അതുതന്നെ നമ്മൾക്ക് കാണാൻ സാധിക്കും ആൾക്കാർ അതുതന്നെയാണ് ഇഷ്ടപ്പെടുന്നത് ഇതു തേങ്ങാ അരച്ചിട്ട് ഉണ്ടാക്കുന്ന കറികളാണ് എല്ലാവർക്കും ഇഷ്ടം പിന്നെ ഞങ്ങൾ മത്സ്യം കഴിക്കുന്ന ആളല്ല മത്സ്യം കഴിക്കുന്ന ആൾക്കാർക്ക് കരിമീനെന്നു പറയുന്ന ഒരു വെറൈറ്റി ഇവിടുത്തെ വിശേഷമാണ് പിന്നെ സമുദ്രത്തിൽ നിന്നു കിട്ടുന്ന മീൻകറികൾ അവർ ഉപയോഗിക്കും ഡെയിലി ഈ മാംസ ഭക്ഷണം ചെയ്യുന്ന ആൾക്കാർക്ക് മാംസാഹാരങ്ങൾ അവർ കഴിക്കാറുണ്ട് ഇങ്ങനെ ഈ പ്രദേശത്തിൽ ഈ പരമ്പരാഗതമായി നമ്മളുടെ മുത്തശ്ശിമാരെല്ലാം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഇപ്പോഴത്തെ കുട്ടികളൊന്നും കഴിക്കില്ല ആ ഭക്ഷണം പറഞ്ഞാൽ അത് ഇല ഇലയടയെന്നു പറയും ഇലയിൽ ഉണ്ടാക്കിയിട്ട് ഈ ഈ പൊടിയെല്ലാം മിക്സാക്കിയിട്ട് ഇലയിൽ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ തേങ്ങാ ശർക്കര മിക്സ്ചർ വെച്ചിട്ട് അത് വേവിച്ചിട്ട് തിന്നുന്ന ഒരു സാധനമാണ് ഇലയടയെന്നു പറയും അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ ഭക്ഷണമെല്ലാം വലിയ ഇഷ്ടമാകുന്നില്ല എങ്കിലും നല്ല ദിവസങ്ങളിൽ സദ്യയെല്ലാം ഉണ്ടാകുമ്പോൾ അതുണ്ടാക്കും പിന്നെ ഇടിയപ്പം ഇടിയപ്പം അതുപോലെ തന്നെ എല്ലാ വിശേഷ ദിവസങ്ങളിലും അത് ഉണ്ടാക്കാറുണ്ട് പിന്നെ കുറേ മുട്ടയെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം ഉണ്ട് അതും വീട്ടിൽ തന്നെ ഉണ്ടാക്കാറുണ്ട് കേക്ക് അതുപോലത്തെ സാധനങ്ങളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അതും കഴിക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ സസ്യാഹാരികളായതു കൊണ്ട് എനിക്ക് സ സസ്യാഹാരമാണ് ഇഷ്ടമുള്ളത് ഏത് പച്ചക്കറി കൊണ്ടു വന്നാലും നമ്മളതിൻ്റെ മോര് കറിയെല്ലാം ഉണ്ടാക്കും മോര് കറിയാണ് നല്ലത് ആരോഗ്യത്തിന് നല്ലത് ഉണ്ടായ ഒരു സാധനമാണ് തേങ്ങ മാത്രം അരച്ചിട്ട് പച്ചക്കറി ഈ നേന്ത്രക്കായ കായ പച്ച നേന്ത്ര അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ പച്ചമുളക് ഇട്ടിട്ട് വേവിക്കണം പിന്നെ അതിന് മഞ്ഞൾ പൊടി കുറച്ചിടണം തേങ്ങ അരച്ചിട്ട് മോര് അതിൽ ഒഴിച്ചിട്ട് പിന്നെ വറവ് മുളകിൻ്റെ കറിവേപ്പില വറവിട്ടാൽ നല്ല ഒരു കറിയാണിത് ആരോഗ്യത്തിനു എല്ലാവർക്കും നല്ലതാണ് അതുപോലെ സാമ്പാറും നമ്മൾ ഉണ്ടാക്കും സാമ്പാർ ഉണ്ടാക്കാൻ എളുപ്പമാണ് സാമ്പാർ പല വിധത്തിൻ്റെ സാ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഇതാണ് മിക്സഡ് വെജിറ്റബിളായിട്ട് കുറേ വെജിറ്റബിൾസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിളിൻ്റത് പിന്നെ ഈ കയ്പ്പക്ക ഉണ്ട് അതും എനിക്ക് നല്ല ഇഷ്ടമാണ് കയ്പ്പക്കേൻ്റെ കുറേ കറികൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് കയ്പ്പക്ക ചെറിയ ചെറിയ പീസായിട്ട് അരച്ചിട്ട് അത് ഉപ്പ് മിക്സാക്കിയിട്ട് വെക്കും പിന്നെ എണ്ണയിൽ വറുത്തിട്ട് എടുക്കും പിന്നെ ഡ്രൈ തേങ്ങ ഉഴുന്ന് ഫ്രൈ ചെയ്തിട്ട് മുളക് പുളി എല്ലാം വെള്ളമിടാതെ അരച്ചിട്ട് ഇതും നല്ല ഉള്ളി ഉള്ളി വറവിട്ടിട്ട് അതിൽ ഇത് മികസാക്കിയിട്ട് വെച്ചാൽ ഒരാഴ്ച്ച വരെ വെച്ചിട്ട് അത് നമുക്ക് ഒരു ചട്ട്ണിപ്പൊടിയെ പോലെ യൂസ് ചെയ്യാറാകും അത് നല്ലതാണ് ഹെൽത്തിനു നല്ലത് പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാകും അതുപോലെ കൈപ്പക്കയുടെ വേറെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട് അത് ഫെസ്റ്റിവൽ ഈ ഗണേഷ് ചതുർഥിയെല്ലാം വരുന്നുണ്ട് ആ സമയത്തിലും അതെല്ലാം ഉണ്ടാകുന്ന സീസണാണ് ആ സമയത്തിൽ അതെല്ലാം എല്ലാ വീട്ടിലും ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട് പിന്നെ പച്ച പയർ ഇവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടമാണ് പച്ച പയറിൻ്റെ വറവുണ്ടാക്കുന്നത് അത് കാപ്പിക്കും ആകും ചോറ് ഉണ്ടാ ഉണ്ണുമ്പോൾ ചോറിൻ്റെ കൂടെയും അത് കഴിക്കും അങ്ങനെ പച്ച പയറിൻ്റെ കറി ഉണ്ടാക്കിയിട്ട് അത് രണ്ടു നേരവും ഏത് സമയത്തും കഴിക്കാനും ഉണ്ട് പുട്ടുണ്ടാക്കുമ്പോൾ പുട്ടിൻ്റെ കൂടെ പയറിൻ്റെ കറിയും ഉണ്ടാക്കാറുണ്ട് അതും നല്ല കോമ്പിനേഷനാണ് അതൊക്കെ ആരോഗ്യത്തിന് നല്ലതുണ്ടായ ചില സാധനങ്ങളാണ് അതൊക്കെ യൂസ് ചെയ്താൽ ഇപ്പോഴത്തെ ഈ ആരോഗ്യ സംബന്ധമായ ചില രോഗങ്ങൾ ഇല്ലാതാക്കാൻ നമ്മൾക്ക് സാധിക്കും നമ്മൾ കഴിക്കുന്ന ഫുഡ് ഏത് വിധത്തിലുണ്ടോ അതുപോലെ ആയിരിക്കും നമ്മളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുന്നത് അതുകൊണ്ട് അത് തിന്നുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതല്ല ആരോഗ്യത്തിനു വേണ്ടിയ സാധനങ്ങൾ നമ്മൾ കഴിക്കാവൂ പിന്നെ കേരളത്തിൽ തെങ്ങ് ധാരാളം കൃഷി ചെയ്യുന്നൊരു നാടായതു കൊണ്ട് കാസർഗോഡ് നല്ല തെങ്ങ് നല്ലതു പോലെ വളരും അപ്പോൾ തെങ്ങിൻ്റെ സാധനം തെങ്ങ് തേങ്ങ ഇടാത്ത ഒരു ദിവസവും ഒരു വീട്ടിലും നമ്മൾ കാണില്ല എല്ലാ ദിവസവും തേങ്ങ ഇല്ലെങ്കിൽ നമ്മൾക്ക് അന്ന് ആ ദിവസം എങ്ങനെ ചോറുണ്ടാക്കു കറി ഉണ്ടാക്കുന്നത് തിന്നുന്ന സാധനം ഉണ്ടാക്കുന്നതെന്ന് ഒരു തലവേദന ഉണ്ടാകും അതുപോലെ കൂടുതൽ ആൾക്കാർ തേങ്ങയുടെ എണ്ണയാണ് കറിക്ക് കഴിക്കാൻ ഉപയോഗിക്കുന്നത് പിന്നെ ഭക്ഷണത്തിനു വേറെ എണ്ണ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇവിടുത്തെ ആൾക്കാരും ഉപയോഗിക്കുന്നത് കുറവാണ് പറഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്യുന്ന സാധനങ്ങളല്ലേ തേങ്ങയെല്ലാം അതുകൊണ്ട് അതിൻ്റെ ഉത്പന്നങ്ങൾ ഞങ്ങൾ തന്നെ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ ആൾക്കതു പറയാനാവില്ല അതുകൊണ്ടാണ് തേങ്ങ നല്ലതു പോലെ ഇവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കും അതിൻ്റെ കുറെ സാധനങ്ങളവർ ഉണ്ടാക്കാറുണ്ട് അത് നമ്മൾക്ക് ഡെയിലി ഒരു അത്യാവശ്യമായ സാധനമാണ്